സ്കൂളുകളിലൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൾ പോയ സമയത്തൊക്കെ തിരുവാതിരക്കളിയിലാണ് എപ്പോഴും ഞാൻ കൂടതലായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഇഷ്ടം കളിക്കാനിഷ്ടമുള്ളൊരു ഇത് തിരുവാതിരയായിരുന്നു അപ്പം നമ്മൾ തിരുവാതിരയെ കളിയിലാണ് എപ്പോഴും കളിക്കാൻ ഇന്ററെസ്റ്റ് കാട്ടിയിരുന്നതും കളിച്ചിരുന്നതൊക്കെ അങ്ങനെയാണ് അപ്പോൾ അത് ആ ഒരു തനിമയായ കേരളത്തിൻ്റെയൊരു തനിമയായ രീതിയിലുള്ള ആ ഒരു ഡ്രെസ്സിങ്ങും ആ പൂ ചൂടലും നല്ല കസവ് മുണ്ടൊക്കെ ഉടുത്ത് നമ്മൾ നല്ല വൃത്തിയിൽ ഒരുപാട് പേർ നല്ല വട്ടത്തിൽ നിന്ന് അത് പൂവൊക്കെ വച്ച് കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരിമാരായി ഒരു കറുകപ്പൂവൊക്കെ എന്നാൽ മുടിയിൽ ചൂടി അതിനൊരു വേറൊരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കളിക്കാനായിരുന്നു എപ്പോഴും ഇഷ്ടം അത് മൂന്നാല് പ്രാവിശ്യം നമ്മൾ സ്കൂളിൽ ഓരോ വർഷവും കഴിയുമ്പോഴും പിറ്റത്തെ വർഷം വരെ നമ്മളതിനു വേണ്ടി കാത്തിരിക്കാറാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ചുതന്നെ നമ്മൾക്ക് സ്കൂളിൽ പഠിക്കണ സമയത്ത് നമ്മൾക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു നല്ല ഓർമ്മയായിട്ടുതന്നെ ഉണ്ട് പിന്നെയിപ്പം നമ്മളെ മക്കളൊക്കെ വലുതായി നമ്മളെ മക്കളെ നമ്മൾ ഭരതനാട്യം കുച്ചിപ്പുടി ഒക്കെ പഠിപ്പിക്കുകയും അവരിലൂടെ നമ്മളെ ആഗ്രഹങ്ങളെ നമുക്കന്ന് കളിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ നമ്മൾ നമ്മളെ മക്കളിലൂടെ ആ ആഗ്രഹം എന്താ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ മക്കളിലൂടെ നമ്മളത് പഠിപ്പിച്ചെടുക്കുകയാണ് കുട്ടികളെ ഇതിന് പറഞ്ഞയച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ കാണാനെപ്പോഴും അന്ന് സ്റ്റേജിൻ്റെ മുന്നിലും നമ്മൾ ഈ ഭരതനാട്യം കുച്ചിപ്പുഡി മോഹിനിയാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ സ്റ്റേജിൻ്റെ മുൻ വശത്ത് നമ്മളിരുന്ന് ഏറ്റവും നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ നമുക്കത് കാണാനും നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ തിരുവാതിരക്കളി കളിക്കുന്ന നമ്മളത് അത് ആ ഒരു ഐറ്റത്തിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ സ്റ്റേജിൻ്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വീക്ഷിക്കുകയായിരുന്നു നമ്മളെ അന്നത്തെ പ്രധാന ഹോബി അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിരുന്നു